ഞങ്ങൾ ഒരു നിങ്ങളെ സൈറ്റിൽ നിന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തിരുന്നു ഒരു സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ചെയ്തിരുന്നു അത് നല്ലൊരു ബുക്കാണ് ഞങ്ങൾ ഇതിന് മുമ്പ് വാങ്ങിയൊരു വല്ലാതെ ഇതായിരുന്നു വേറൊരു സൈറ്റിൽ നിന്ന് ഏകദേശം അതുകൊണ്ട് നിങ്ങളെ സൈറ്റിൽ നിന്ന് പുതിയ ട്രൈ ചെയ്തു നോക്കിയതാണ് അതിൽ ടെക്സ്റ്റ് ബുക്ക് നല്ല ടെക്സ്റ്റ് ബുക്കാണ് പിന്നെ പുതിയ എഡിഷനാണ് പിന്നെ നല്ല നല്ല കവറിങ്ങും എല്ലാം കറക്ട് ആയിരുന്നു എല്ലായിതും ഇപ്പോൾ സ്റ്റാപ്ലറിങ്ങായാലും അതിൻ്റെ പേജസ് ആയാലും പേജസിൻ്റ ക്വാളിറ്റി ആയാലും എല്ലാം നല്ലതായിരുന്നു നല്ലൊരു സ്മൂത്ത് ആയിട്ട് പഠിക്കാനും പെട്ടെന്ന് കീറി പോവാത്ത പേജുകളാണ് പിന്നെ ചട്ടയായാലും ഇതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിയിട്ട് കുറേ കാലം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ചട്ടയും അതെല്ലാം നല്ല നല്ല സ്ട്രോങ്ങ് ആണ് നല്ലൊരു ബുക്കായി അതായത് നല്ലൊരു ബുക്കാണ്